ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിനുവേണ്ടി സ്വന്തം രാജ്യത്തെ ആശ്രയിക്കാതെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള താല്പര്യം അവർക്ക് അങ്ങനെയുള്ള ട്രെൻഡ് ഇപ്പം കൂടിക്കൂടി വരികയാണ് കേരളത്തിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ആരുംതന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളര കുറവാണ് അപ്പം ഇപ്പം എല്ലാവർക്കും യൂറോപ്പ്യൻ രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുക യൂറോപ്പ്യൻ രാജ്യങ്ങളിലേക്കോ മറ്റുരാജ്യങ്ങളിലേക്കോ പോകാനുള്ള റ്റെൻഡൻസി ഇപ്പം വളരെ വളരെ കൂടുതലാണ് മറ്റൊന്നും കൊണ്ടല്ല അവരുട കുട്ടികളുടെ വിദ്യഭ്യസം അവരുടെ അവർക്ക് ടെൻഷൻ ഇല്ല ടെൻഷൻ മീൻസ് അവർ കംഫർടാണ് അവർക്ക് ഗവൺമെൻറ്റ് അവരുടെ ഗവൺമെൻറ്റ് ധാരാളം കാര്യങ്ങൾ അവർക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ അവർ അതിൽ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ അവർക്ക് മാറ്റ് കാര്യങ്ങളെയൊക്കെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട അവരുടെ നിയമങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളാണ് അവർക്ക് അവരെ പിന്താങ്ങുന്ന നിയമങ്ങളാണ് രാജ്യം ഓരോ രാജ്യവും കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ധാരാളം ആൾക്കാർ അവരുടെ പഠനത്തിന് അനുസരിച്ചുള്ള ജോലിക്കുവേണ്ടി പോകുന്നുണ്ട് നമ്മുടെ ഇവിടെയാണെങ്കിൽ അവരുടെ പഠനത്തിന് അനുസരിച്ചുള്ള ഇൻകം അവർക്ക് ലഭിക്കുന്നില്ല ധാരാളം ഒരുപാട് പേർ വരും ഒരുപാട് വരുമാനം ഇപ്പം സ്കൂളുകളിൽ പോലും ബി എഡ് ബി എഡും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം എടുത്തുകഴിഞ്ഞാൽ പോലും അവർക്ക് തുച്ഛമായ വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ അങ്ങനെയുള്ള രാജ്യം അതുകൊണ്ട് അവർക്ക് ഒരു വരുമാനംകൊണ്ട് അവരുടെ കുടുംബത്തെ പോറ്റാനുള്ള ശേഷി തുലോം കുറവാണ് ആ ഒരു സാഹചര്യത്തിൽ അവർ മറ്റുള്ള രാജ്യങ്ങൾക്കാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ നല്ല രീതിയിൽ വളരെ വളരെ കുടുതലുള്ളതുകൊണ്ട് അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റെവിടെയെങ്കിലും എന്നുവെച്ചാൽ അതുപോലെത്തന്നെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ജോലി ജോലിക്കുള്ള ഓപ്പർട്യൂണിറ്റീസ്സ് തീരെ കുറവാണ് അപ്പം നമ്മൾ മറ്റുള്ള രാജ്യത്തിന് എന്നുവെച്ചാൽ അവർ അവരുടെ കുടുംബത്തെ കുടുംബത്തെ പോറ്റാൻ ഈ സാമ്പത്തികം ഒരിക്കലും അവർക്ക് തികയാറില്ല അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെ കുട്ടികൾ നാട്ടിലു വരുമ്പോഴൊക്കെ ധാരാളം സാമ്പത്തികം ചിലവാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതായത് സാമ്പത്തികം കുറഞ്ഞ കുഞ്ഞുങ്ങൾ വളരെ വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു ജീവിത നിലവാരമാണ് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള സാധ്യത കാരണം അവരുടെ ജീവിത ജീവിത പ്രാരാബ്ദത്തെ ഓർത്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള ചേക്കേറാനുള്ള സാധ്യത വളരെ അധികം ഉണ്ട് അതനുസരിച്ച് ഒരു ഒരു ഏകദേശം കുറെ കാലയളവ് കാലയളവു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ അവർ നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ധാരാളം വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നതു കാണാം കാരണം എല്ലാവരും യൂറോപ്പ്യൻ രാജ്യങ്ങളിലേക്കോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോക്കെ ഒക്കെ ചേക്കേറി മുന്നോട്ടുപോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതിനുള്ള സാമ്പത്തികം അവർ ലോണോ കടമോ ഒക്കെ എടുത്തിട്ട് അവർക്ക് തിരിച്ചു വീട്ടാനുള്ള ഒരു ഒരു സാഹചര്യവും അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് ലോണും മറ്റുള്ള സാഹചര്യങ്ങളും കിട്ടുന്നത് കൊണ്ട് അവർ തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറി അവരുടെ ജീവിതം കംഫർട് ആക്കി മുന്നോട്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വന്തം മക്കളുടെ പഠനം പഠനം അവർക്ക് ഭാവി അതായത് ജോലി മറ്റ് കാര്യങ്ങളും ജോലി ജോലി കിട്ടാനുള്ള സാധ്യതയും പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഠനത്തോടൊപ്പം അതായത് അവർക്ക് ഇൻകവും കിട്ടും അതുപോലെത്തന്നെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം വളരെ അധികം യൂറോപ്പ്യൻ കൺട്രീസ് കൺട്രികളിലും ആഫ്രിക്കൻ കൺട്രികളിലും ഒക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ കുടുംബമായിട്ട് ജീവിക്കാനുള്ള നമ്മുടെയൊക്കെ രാജ്യത്താണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ സാമ്പത്തികംകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല അതുപോലെത്തന്നെ അവർക്ക് കുടുംബമായിട്ട് ഉള്ള ഒരു ഒരു ജീവിതസാഹചര്യം നമ്മുടെ രാജ്യത്ത് കിട്ടാനുള്ള സാധ്യത തീരെ തുലോം കുറവാണ് അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ മുന്നോട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ അതുപോലെ തന്നെ മാതാപിതാക്കൾ വാർധക്യത്തിൽ ഉള്ളവരെയൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു നമ്മുടെ രാജ്യത്താണെങ്കിൽ എത്രത്തോളം മാതാപിതാക്കൾക്ക് കെയറിങ് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ യൂറോപ്പ്യൻ രാജ്യങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ താമസം മാറ്റുന്നതിനാണ് എല്ലാ ആൾക്കാർക്കും കൂടുതൽ താല്പര്യം